നമ്മുടെ ഇപ്പോൾ സ്ക്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പണ്ടൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പെട്ടെന്നുതന്നെ ജോലി സമ്പാദിക്കണം അങ്ങനെയുള്ള രീതിയ്ക്കാവുമ്പോൾ അവർ പണിക്കുപോകും ഇപ്പോൾ കിട്ടണ പണിക്ക് പോയിട്ട് എന്തെങ്കിലും പൈസ ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് മുമ്പുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ നേരെ മറിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലങ്ങനെയല്ല ഇപ്പോൾ മിക്ക കുട്ടികൾക്കും അല്ലെങ്കിൽ മിക്ക അച്ഛനമ്മമാർക്കും അവർ മക്കളുടെ കാര്യത്തിൽ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളുമുണ്ടാവും ഇപ്പോൾ അവർ പത്താം ക്ലാസ്സുവരെ എന്തു ചെയ്യണം പത്താം ക്ലാസ്സു കഴിഞ്ഞ് പ്ലസ് ടുവിന് എന്തു ചെയ്യണം അത് കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ പോവണ സമയത്ത് ഇപ്പോൾ ചില സമയത്ത് ചിലർക്ക് ഡോക്ടറാക്കണം ചിലവർ എൻജിനിയറാവണം ചിലവർ എം ബി എ എടുക്കണം അതുപോലെ കളക്ടറാവണം ചിലർക്ക് ആർമ്മിയിൽപ്പോകണം അങ്ങനെ പല പല ഉദ്ദേശങ്ങളായിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ അവർ പഠിക്കാൻ തന്നെ അല്ലെങ്കിൽ അവർ ഇപ്പോൾ കുട്ടികളല്ലെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിലും അവരെ പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യണത് അങ്ങനെയാണ് അപ്പോൾ ജോലി മാത്രമല്ല കുറച്ചും കൂടിയെന്നു പറയു ബിസ്നസ്സും ജോലി ആ കുടുംബപരമായിട്ടുള്ള ബിസ്നസ്സും മാത്രമല്ല അതതിൻ്റെ ഒപ്പം കണ്ടിന്യൂ ചെയ്യും പിന്നെ വേറൊരു കാര്യമെന്നു വച്ചുകഴിഞ്ഞാൽ അതിൽ വരണത് ജോലി മാത്രമല്ലാ അവർക്ക് ഇപ്പോൾ പ്ലസ് റ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് അടിസ്ഥാന സ്ക്കൂൾ അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടിയിട്ട് പണിക്കിറങ്ങണതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷനെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് കുറച്ചുംകൂടെ വിദ്യാഭ്യാസം നേടിയിട്ട് ഒരു നല്ലൊരു ജോലി നേടുകയെന്നുള്ളൊരു ലക്ഷ്യമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത് അപ്പോൾ അതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപകാരമെന്നു പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നേ അതുപോലെ ഇപ്പോൾ നല്ലൊരു ജോലി ഇപ്പോൾ നല്ല ഇപ്പോൾ വിദ്യാഭ്യാസം കൂടുതലാണ് പറയുമ്പോൾ അതിനനുസരിച്ച് നല്ലൊരു റെസ്പെക്റ്റും കാര്യങ്ങളുള്ള ജോലിയും കാര്യങ്ങളൊക്കെയായിരിക്കും മിക്കവാറും ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മള് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സാധാ ചെറിയ സാധാ ജോലിക്ക് പോണതിനു പകരം പ്ലസ് റ്റു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് സർക്കാർ നല്ലൊരു സർക്കാര് പോസ്റ്റിലേക്കിപ്പോൾ നോക്കുകയാണ് പറഞ്ഞാൽ ഇപ്പോൾ വില്ലേജ് ഓഫീസറ് അല്ലെങ്കിൽ തഹസിൽദാര് അങ്ങനത്തെ പോസ്റ്റുകളിപ്പോൾ ഉം മറ്റേ പ്ലസ് റ്റു ഡിഗ്രിയൊക്കെ പാസ്സായി കഴിഞ്ഞാൽ മറ്റേ കളക്ടറിൻ്റെ എക്സാം എഴുതി ഐ എ എസ് എഴുതി അങ്ങനെ ഐ പി എസ് അങ്ങനത്തെ ജോലികള് അങ്ങനത്തെ ജോലികൾക്കൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ താൽപര്യം അതായത് കൂടുതൽ വിദ്യാഭ്യാസം നേടുന്ന നേടിക്കൊണ്ട് നല്ല ജോലി നേടുക അപ്പോൾ എന്താണ് നല്ല അവർക്ക് ആവിശ്യത്തിന് അറിവും കിട്ടും പിന്നെ നല്ല ജോലിയാവുമ്പോൾ അതിനനുസരിച്ച വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അതുപോലെയിപ്പോൾ ബിസ്നെസ്സിൻ്റെ കുടുംബ ബിസ്നെസ്സിൻ്റെ കാര്യമാണെങ്കിലും പണ്ടത്തെപ്പോലെ ജസ്റ്റ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങണതിനു പകരം പ്ലസ് റ്റു കഴിഞ്ഞ് ഒരു എം ബി എ ഒക്കെ എടുത്ത് അതില് കുറച്ചും കൂടെ ബിസ്നെസ്സ്പരമായ കുറച്ചുംകൂടെ കാര്യങ്ങളൊക്കെ പഠിച്ച് അതില് കുറച്ച് പ്രാവീണ്യം നേടിയിട്ട് ബിസ്നെസ്സ് രംഗത്തേക്കിറങ്ങും അപ്പോൾ എന്താ ഉപകാരമെന്നു വെച്ചുകഴിഞ്ഞാൽ അതില് കുറച്ചുംകൂടെ അവർക്കിപ്പോൾ പഴയ തലമുറയുടെ ചിന്തയേക്കാട്ടും കുറച്ചുംകൂടെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ചിന്തിക്കാനും അപ്പോൾ അതില് കൂടുതലായിട്ട് പൈസ ഉണ്ടാക്കാനും പറ്റും